ഹലോ അതേലോ ആരാണ് വിളിക്കുന്നത് ആയി ഓക്കെ ഓക്കെ ആ എന്നെത്തേക്കാണ് ഓക്കെ ഓക്കെ ഓക്കെ എന്ത് ഫംഗ്ഷൻ ആണ് ഓക്കെ ആം ആ നമുക്ക് വരുന്ന ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് വാനിലയുണ്ട് ചോക്ലേറ്റുണ്ട് വാഞ്ചോയുണ്ട് ബ്ലാക്ക് ഫോറെസ്റ്റുണ്ട് വൈറ്റ് ഫോറെസ്റ്റുണ്ട് നമുക്ക് എവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ എന്തോ ആ റെഡ് ഉണ്ട് ഉണ്ട് റെഡ് വെൽവെറ്റ് ഉണ്ട് ആദ്യത്തെ ബർത്ത് ഡേ എന്തെങ്കിലും ആണോ കുട്ടിയുടെ ഓക്കെ നമുക്ക് ഇപ്പം കുട്ടികളുടെ ആണെങ്കിൽ പല തീമില് വരുന്ന കേക്കുകളുണ്ട് സ്പൈഡർ മാൻ ബാറ്റ് മാൻ അങ്ങനെ പല തീമിലുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തേലും പ്രിഫെറെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം ഓക്കെ ഓക്കെ ഉണ്ട് നമുക്ക് കപ്പ് കേക്ക്സ് ഉണ്ട് പോപ്സിക്കിൽസ് ഉണ്ട് മഫ്ഫിൻസ് എല്ലാം അവൈലബിളാണ് അപ്പം എത്ര എണ്ണമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ചെയ്ത് തരാൻ പറ്റും ഓക്കെ ഉം ആ ഓക്കെ ടു കെ ജി യുടെ സിങ്കിൾ കേക്ക് ഒറ്റ കേക്കായിട്ടാണൊ അതെയോ സെപ്പറേറ്റ് വേണോ ഓക്കെ ഓക്കെ ഓക്കെ ശരി ടു ടെയറായിട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഏപ്രിൽ ഇരുപത്തഞ്ച് ആ നമുക്ക് ഡെലിവെറി ഡെലിവെറി ഉണ്ട് നമ്മൾ വന്നു സെറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ടു ടെയറാകുമ്പോൾ നമ്മൾ അവിടെ വന്ന് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ആ സമയം എങ്ങനെയാണ് വൈകിട്ടാണൊ ഓക്കെ കുഴപ്പം ഇല്ല അപ്പം നമുക്കൊരു ആറ് മണി ആകുമ്പത്തേനും നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും ആ പറ്റും പറ്റും നിങ്ങൾക്ക് എന്തേലും പ്രിഫറെൻസ് ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ച് തന്നേര് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളത് നമ്മൾ ചെയ്ത് കാണിച്ച് തരാം

ഓക്കെ ആ മനസിലായി മനസിലായി ആ ആ ക്യാൻ്റിൽ വേണം ഓക്കെ നമ്മൾ ടോപ്പിങ്സ് എന്തേലും ആഡ് ചെയ്യണോ അതെയോ നോർമൽ ഇത് തന്നെ മതിയോ ആ ഓക്കെ ചെയ്യാം ചെയ്യാം നമുക്ക് അങ്ങനെ ചെയ്യാം ഉം ആ ഹാപ്പി ബർത്ത് ഡേ ദിയ അല്ലെ ആ ഓ ആ വില നമുക്ക് ടു കെ ജി വരുമ്പഴത്തേനും ആയിരത്തഞ്ഞൂറ് രൂപയാകും പിന്നെ കപ്പ് കേക്ക്സും നൂറ്റമ്പത് എണ്ണം അല്ലേ അപ്പോൾ കപ്പ് കേക്ക്സിന് ഒരു എഴുന്നൂറ്റമ്പത് രൂപയും കൂടെ പിന്നെ നമുക്ക് നമുക്ക് ഇല്ല ഒന്നിച്ച് ചെയ്താലും മതി കുഴപ്പമില്ല നമുക്ക് ആ ആ എല്ലാം കഴിഞ്ഞിട്ട് മതി മതി മതി മതി കുഴപ്പമില്ല നമുക്ക് ഇത്രയും ആ എങ്കിൽ എങ്കിൽ ഒരു ഇരുന്നൂറ്റ് ഒര് അഞ്ഞൂറ് രൂപ ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്താലും മതി ഓക്കെ ഉറപ്പായിട്ടും ഇപ്പം ഒരു രണ്ട് ദിവസം മുന്നേ ഒന്ന് ഓർമിപ്പിച്ചാൽ മതിയാകും ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി ഒന്നും കൂടെ ഒന്ന് വിളിച്ച് കൺഫർം ചെയ്താൽ മതി ഓക്കെ ടാങ്ക്യു